മലയാളം നമ്മുടെ മാതൃഭാഷയാണ് കേരളീയരുടെ ഭാഷയാണ് മലയാളം എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സമൂഹം മലയാളഭാഷ സംസാരിക്കാൻ മടിക്കുന്നവരാണ് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു അപമാനമായിട്ടാണ് അവർ കാണുന്നത് അതുപോലെതന്നെ നമ്മുടെ ഇപ്പോൾ വിദ്യാലയങ്ങളിൽ തന്നെ ആയാലും മലയാളം എന്ന ഭാഷായിലുപരി മലയാളം എന്ന ലാംഗ്വേജ് പറയാൻ അവരെ സമ്മതിക്കാതെ ഇംഗ്ലീഷ് മുൻകൂട്ടി കൊണ്ടു വരികയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് നമ്മുടെ മാതൃഭാഷ എന്ന നിലയിലാണ് ഇപ്പോൾ എല്ലാ മലയാളികളും കാണുന്നത് അതുപോലെതന്നെ ഇപ്പോൾ ഓരോ വില്ലേജുകളിൽ വില്ലേജുകളിൽ ആയാലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ആണ് അവർ മുൻകൂട്ടി കാണുന്നതും നമ്മുടെ മാതൃഭാഷയിലുപരി മാതൃഭാഷ ആയിട്ട് ഇംഗ്ലീഷിനെ കൊണ്ടുവരികയാണ് ചിലർ അതുപോലെ തന്നെ അതിലുപരി ഇപ്പോൾ കാണപ്പെടുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി സ്കൂളുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ മാതൃഭാഷ നമ്മുടെ മാതൃഭാഷ ഒരു സബ്ജെക്ട് ആയിട്ട് കൊണ്ടുവരികയാണ് അതൊരു വ്യത്യസ്തകരമായ ഒരു കാഴ്ചയാണ് അതുപോലെതന്നെ ഒരു നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അതേ സമയം നമ്മൾ നമ്മുടെ ഭാഷയെ താഴ്ത്തി കാണുമ്പോൾ അവർ നമ്മുടെ മാതൃഭാഷയെ മുൻകൂട്ടി നല്ല നിലയിലേയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്